ആ ഹലോ സാർ നമുക്കൊരു പ്രോജക്ട് കിട്ടിയിട്ടുണ്ട് ക്ലാസിൻ്റെ അപ്പോൾ ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി നമുക്കൊരു സർവ്വേ സംഭവം തന്നിട്ടുണ്ട് സർവ്വേടെ പേര് ഭാഷിണിന്നാണ് അപ്പോൾ സാറിൻ്റെ ക്ലാസിലെ പിള്ളേരുണ്ടാവില്ലേ സാറിൻ്റെ ക്ലാസീന്ന് പിള്ളേരിണ്ടാവില്ലേ ആ ആ അതെന്താന്ന് വെച്ചാൽ മലയാളം എ ഐ ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രോജക്ടായിരുന്നു ആ അപ്പമത് സാറിൻ്റെ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ടാവും ഏകദേശം നമുക്ക് ഗ്രൂപ്പായി തിരിക്കാം ആ ഒരു രീതിക്ക് വിടാം ആ ആ ഒക്കെ അഞ്ച് ഗ്രൂപ്പ് ആയി തിരിച്ചിട്ട് നമ്മുടെ അടുത്ത്ന്ന് പത്ത് ഓ ആ അഞ്ച് മതി അഞ്ച് മതി അഞ്ച് ഗ്രൂപ്പ് മതിയെടാ ആ അപ്പം നമുക്കെ അഞ്ച് ഗ്രൂപ്പായി തിരിച്ചിട്ട് പത്തനംതിട്ട ജില്ലയ്ക്ക് വിടണ്ടേ

ആ മലയാളം ഭാഷയിൽ സംസാരിച്ചിട്ട് അത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ആപ്പിനകത്ത് കെറ്റോക്കെ വേണ്ടെ

ആ നമുക്കൊരു നാല് ദിവസം കൊടുക്കാം അതിന് ശേഷം അവർക്ക് വേണ്ടതിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം നോക്കാം എന്തായാലും നാല് ദിവസത്തിനുള്ളിൽ തീരാനൊന്നും ചാൻസില്ല അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ആ പിന്നെ ആ എൻ്റെ ക്ലാസ്സിലൊരു നാൽപ്പത്തേഴ് പേരുണ്ട് ആ പിന്നെ നമുക്ക് ഒരു ഗ്രൂപ്പിന്ന് ഒരു പത്തനംതിട്ട ജില്ലക്കാരനെ വെച്ചിട്ട് ഇടാം അപ്പോൾ ആ കുട്ടി വഴി കണക്ട് ചെയ്ത് കൊടുക്കാം ആങ്ങനെ ചെയ്യാൻ പറയാം അല്ലാണ്ടിപ്പോൾ

ആ നമ്മളിപ്പോൾ മെയിനായിട്ട് പത്തനംതിട്ട ജില്ല കോൺസഡ്രേറ്റ് ചെയ്യുന്നത് ആ അപ്പോൾ നമ്മടടുത്ത് പത്തനംതിട്ട ജില്ലക്കാരുടെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി ആ ഒരാൾക്ക് ആ ഒരാൾക്ക് മൂന്ന് പേരെ ചെയ്താൽ മതി ടോട്ടല് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നൂറ്റൻപത് ഫോമ് വീതം ചെയ്യണം ആ നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് ഫസ്റ്റൊന്ന് ചെയ്ത് നോക്കീട്ട് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് അവർക്ക് കാണിച്ച് കൊടുക്കാം ഒരു ക്ലാസ്കാർക്ക് ക്ലാസ് എന്തായാലും കണ്ടക്ട് ചെയ്യണം

ആ അപ്പോൾ നമുക്ക് മനസിലാകുവല്ലോ എങ്ങനെയാണ് സംഭവം എന്താണ് കാര്യങ്ങളെന്നൊക്കെ നമുക്കൊരു ഐഡിയായിട്ടിരിക്കാം എന്തായാലും പത്തനംത്തിട്ട തന്നെ കാണിക്കണം എന്നാ പറഞ്ഞത് പിന്നെ ഏതായാലും ഉടായിപ്പൊന്നും നടക്കില്ല ആ അപ്പോൾ എന്തായാലും നമുക്കത് നോക്കീട്ട് ചെയ്യാം സാർ ഓ ശരി ആയിക്കോട്ടെ